കോഴി വളർത്തൽ അല്ലെങ്കിൽ താറാവ് വളർത്തൽ ബിസിനസ് കൂടാതെ മറ്റെന്തെങ്കിലും ബിസിനസ് ഉണ്ടോ എന്നു ചോദിച്ചാൽ എൻ ഞങ്ങളുടെ കുടുംബത്തിന് അതായത് എൻ്റെ കുടുംബം ഇപ്പം നിലവിലൊന്നും വളർത്തുന്നില്ല പക്ഷേ എൻ്റെ അമ്മച്ചിയുടെ വീട്ടിലൊക്കെ പണ്ട് കോഴിയും താറാവും പോരാത്തേന് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പങ്ങനെ അത് അവിടെ പാലക്ക കറന്നു കൊടുത്തു അങ്ങനെയുള്ള ബിസിനസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കോഴിയുടെ മുട്ടയൊക്കെ അവർ കോഴിക്കു തീറ്റയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അപ്പതിനെ തീറ്റയൊക്കെ കൊടുത്ത് അതിനെ നല്ലായിട്ട് വളർത്തി നോക്കി വളർത്തി അതിനുള്ള അസുഖങ്ങളും അതിൻ്റെ മരുന്നുകളൊക്കെ കൊടുത്ത് അതിൻ്റെ അതിന്ന് കിട്ടുന്ന മുട്ടയൊക്കെ വിറ്റിട്ട് അങ്ങനെയുള്ള ബിസിനസ്സൊക്കെയിരുന്നു ചെയ്തു കൊണ്ടിരുന്നത് അതുപോലെതന്നെ താറാവങ്ങനെ വലുതായിട്ടില്ലായിരുന്നു കോഴി ഉണ്ടായിരുന്നു കോഴിയും പശുവാണ് ഉണ്ടായിരുന്നത് പശുവിന് പാലൊക്കെ കറന്നു വിൽക്കുന്ന ഒരു പാല് വിൽക്കുന്നതും പാലിൽ നിന്നു തൈര് ഉണ്ടാക്കി തൈര് വിൽക്കുന്ന അങ്ങനെയുള്ള ബിസ് ബിസിനസൊക്കേയായിരുന്നു ചെയ്തു കൊണ്ടിരുന്നത് പിന്നെ കോഴി മതിയെന്നു നിങ്ങൾ കരുതുന്നുണ്ടോ അതോ ആളുകൾ മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്നു ചോദിച്ചാൽ കോഴി മതിയെന്ന് അങ്ങനെ പറയ് അങ്ങനെ പറയുന്നില്ല കോഴി എന്നു പറയുന്ന ഒരിത് നമുക്കൊരു ബിസിനസ്സിനു വേണ്ടി ഉപയോഗിക്കുന്നൊരു മാർഗ്ഗമാണ് അതുപോലെ തന്നെ പല തരത്തിലുള്ള ബിസിനസ്സുകളുണ്ട് ഇപ്പോൾ കോഴിയും പശുവും അല്ലാതെ തന്നെ ഇപ്പോൾ പന്നി ഫാം പന്നി വളർത്തുന്നവരുണ്ട് പന്നിയിറച്ചിക്കൊക്കെ കൊടുക്കുന്നവരുണ്ട് അങ്ങനെയുള്ള പലതരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ കോഴി മാത്രം മതി എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കോഴി ഒരു നല്ല ഒരു മാർഗ്ഗമാണ് നോക്കാനും വളർത്താനും ഒക്കെ വളരെ എളുപ്പമാണ് അതുപോലെതന്നെ കോഴി തരുന്നത് മുട്ടയൊക്കെ ശേഖരിക്കാനും അതിനെ വിൽക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇറച്ചി കൊഴികൾ കുക്കെ വിൽക്കാൻ വേണ്ടി ഇറച്ചി കോഴികളായിട്ട് വിൽക്കാനായിട്ട് സാധിക്കും അപ്പത് നമുക്കൊരു ബിസിനസ്സിനു കൂടുതലും മെച്ചം തരുന്നു എന്നതു കൊണ്ടു കോഴി വളരെ നല്ലതാണ് എന്നു പറഞ്ഞു അതു മാത്രം ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അതുപോലെതന്നെ ഈ ബിസിനസ്സിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ കോഴികൾക്കു വേണ്ടിയിട്ടുള്ള ഈ ഷെഡ് കെട്ടുന്നതായാലും അതിനുള്ള കുറച്ചും കൂടി സംവിധാനങ്ങൾ കുറച്ചൊന്ന് മെച്ചപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട് കാരണം ഇപ്പോഴുള്ള നിലയിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന സംവിധാനങ്ങളിൽ എന്നാൽ അത്ര ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു കോ കോഴികൾക്ക് തീക്ക തീറ്റ കൊടുക്കാനും വെള്ളം കൊടുക്കാം നോക്കായിട്ടുള്ള ഉപകരണങ്ങൾ കുറേ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേ കൂടി കോഴി വളർത്താൻ അതുപോലെ തന്നെ കോഴീനെ വളർത്തുന്ന ഷെഡുകളൊക്കെ വലുതായിരുന്നെങ്കിൽ കോഴി കുറച്ചു കൂടി കൂടുതൽ വളർത്താനും അതിനെ നല്ലതായിട്ടു നോക്കാനും അതിന്ന് കൂടുതൽ ലാഭം എടുക്കാനും ഒക്കെ സാധിക്കുമായിരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയാണ് അതിനെക്കുറിച്ച് എനിക്കു പറയാനുള്ളത്